ഫോണിൻ്റെ ഉപയോഗം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചത് ലാൻഡ് ഫോണുകളാണ് വളരെ വർഷങ്ങൾക്കു ശേഷമാണ് സ് സെൽ ഫോണുപയോഗിക്കാൻ തുടങ്ങിയത് സെൽ ഫോണും പഴയ ബട്ടൺ ഫോണുകളാണ് ഉപയോഗിച്ച് വളരെ വർഷങ്ങളുപയോഗിച്ചത് സ്മാർട്ട് ഫോണുകളിലേക്കു വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് സാങ്കേതിക വിദ്യയ്ക്ക് വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിച്ചു അതുപയോഗിക്കേണ്ട രീതിക്കും വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായി അതിനകത്ത് പിന്നെ ഉള്ള സൗകര്യങ്ങൾ പിന്നെ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കാമെന്നുള്ളതു വളരെ വ്യത്യാസമായിട്ടു വന്നു അതു സിമ്പിളായിട്ടു പറഞ്ഞെന്നാൽ വളരെ ലളിതമായിട്ടു പറഞ്ഞെന്നാൽ ഇന്നത്തെ സ്മാർട്ട് ഫോൺ മുമ്പ് ഉപയോഗിച്ച് കൊണ്ടിരുന്ന പല സാധനങ്ങളെയും റീപ്ലേയ്സ് ചെയ്യപ്പെട്ടു ഉദാഹരണത്തിനു ക്യാമറ നമ്മളൊരു കാലത്ത് ക്യാമറ സെപ്പറേറ്റ് നന്നായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരുന്നു ക്യാമറ റീപ്ലേയ്സ്ഡായി പിന്നെ അലാം ക്ലോക്ക് റി റീപ്ലേയ്സ് ചെയ്യപ്പെട്ടു പിന്നെ എന്താണ് ഈവൻ ഇന്ന് മുഖം നോക്കുന്ന മിററ് മുഖം നോക്കുന്ന കണ്ണാടി പോലും മൊബൈലിൽ സെൽഫീൽ ഉപയോഗിച്ച് കുട്ടികൾ മുഖം നോക്കുന്നതു വരെ കാണാം അതുവരെ ഇന്ന് ഇപ്പോൾ സിംഗിൾ കാര്യത്തിൽ ഈവൻ നമ്മൾ പണ്ട് ഹോമിൽ ഡയറി മെമ്മറിക്കു വേണ്ടി ഡയറി ഉപയോഗിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഫോണിലാണ് ഡയറി കലണ്ടറുപയോഗിച്ചു കൊണ്ടിരുന്നു അതു മാറിപ്പോയി ഇ ഇന്ന് ഫോണിൽ കലണ്ടറുപയോഗിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ അലേട്ട് ചെയ്തു വെക്കാനുണ്ടെങ്കിൽ അല്ലെ ടാസ്ക്കുകൾ എഴുതി വെക്കുന്ന പണ്ടത്തുണ്ടായിരുന്ന പ്ലാനറുകൾ പോയി അതിന്നു കലണ്ടറിൽത്തന്നെ സ്മാർട്ട് ഫോണിൽ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ കലണ്ടറിൽത്തന്നെ അലേട്ട് ആയിട്ടും എൻഗേജിയായിട്ടും അങ്ങനെയുള്ള പല ടാസ്ക്കുകളിൽ സൂക്ഷിക്കപ്പെടുന്നു പിന്നെന്താണ് പണ്ടുണ്ടായിരുന്ന ഫോൺ ഡയറി ഈ റീപ്ലേയ്സ് ചെയ്യപ്പെട്ടു നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ വന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരുനാളുപയോഗിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഈ സ്മാർട്ട് ഫോണിൻ്റെ സാങ്കേതിക വിദ്യക്കകത്തേക്ക് ഒതുങ്ങി പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഒരു ഈവൺ ബാങ്കിങ് ബാങ്കിൽ പോകുകയും പൈസ റ്റ് ന്ന് ഒരാൾക്ക് എനിക്കിപ്പോൾ പൈസ വേറാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫോണുമായിട്ട് ലിങ്ക്ഡ് ആണ് ആ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എനിക്കു വളരെ ഈസിയായിട്ടു ചെയ്യാം അപ്പം പിന്നെ യാത്രക്കുള്ള ടിക്കറ്റെടുക്കുന്ന അങ്ങനെയുള്ള ഓൺലൈനായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്കു വന്നു നമ്മുടെ ഒത്തിരിയും ടാസ്ക്കുകളും ഒത്തിരിയും ഉപകരണങ്ങളും സംഭവങ്ങളും ഇന്നീയൊരു ചെറീയ സാധനം റീപ്ലേയ്സ് ചെയ്യപ്പെട്ടു അതാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യ എന്നു നമ്മൾ ഞാൻ തിരിച്ചറിയുന്നു